നം നം ഞങ്ങളാചരിക്കുന്ന ഒരു പിന്നെ ഉത്സവമെന്ന് പറയുകയാണെങ്കില് ഈ വയനാട് ജില്ലക്കാര് ആചരിക്കുന്ന ഒരു ഉത്സവമെന്ന് പറഞ്ഞാൽ വെള്ളിയൂർക്കാവാണ് ഏറ്റവും വലിയൊരു ഉത്സവമാണ് വെള്ളിയൂർക്കാവ് വെള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞെങ്കില് ഒന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഉത്സവങ്ങള് അത് നല്ല എല്ലാവരും എല്ലാ ഭക്ത ജനങ്ങളും എത്താവുന്ന ഒരു സ്ഥലം കാരണം എത്തിപ്പെടാവുന്ന ഒരു രീതിക്കുള്ള ഒരു റോഡ് സൈഡിൽ തന്നെയാണ് വെള്ളിയൂർക്കാവ് സ്ഥിതിചെയ്യുന്നത് കാരണം വെള്ളിയൂരമ്മ വെള്ളിയൂര് മേലെ കൊണ്ട് കുറച്ച് ഐതീഹ്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചെനിക്കറിയില്ല പക്ഷേ അത് വെള്ളിയൂരമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകള് വായിക്കുന്ന പഴയ ആൾക്കാർക്കൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാവു അറിയാൻ പാടുള്ളൂ പിന്നെ ഉത്സവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഉത്സവം നമ്മുടെ വയനാട്ടിൽ കൊണ്ടാടുന്നുണ്ട് ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് വെള്ളിയൂർക്കാവ് ഉത്സവം കൊണ്ടാടുന്നത്